ഹലോ ആ ഇത് ഡോക്ടർ അല്ലേ ആ എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ പനിയും ഒര് ശ്വാസതടസ്സം പോലെ ഉണ്ട് ഒര് രണ്ട് മൂന്ന് ദിവസം ആയിട്ടേ ഉള്ളൂ ആ അറ്റൻഡ് ചെയ്തായിരുന്നു അത് ഓ രണ്ടാൾക്കാർക്ക് ഉണ്ടായിരുന്നു എനിക്കിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് മേല് വേദനയും തൊണ്ട വേദനയും ഉണ്ട് പിന്നെ ചെറിയൊരു ബ്രീത്ത് എടുക്കാൻ ചെറിയൊരു പ്രോബ്ലെം ഉണ്ട് പിന്നെ പനിയും ഉണ്ട് ഫുഡ് കഴിക്കുമ്പം ടേസ്റ്റ് ഒന്നും ഇല്ല വേറെ വേറെ എൻ്റെ മമ്മിക്കും തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നു എത്ര എത്ര ദിവസം ക്വാറൻറ്റയിൻ ഉണ്ട് ആ ഓക്കെ ഓക്കെ കയ്യില് പാരസിറ്റമോളാണ് ഉള്ളത് എന്നാൽ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ